എന്റെ പ്രദേശത്തെ പ്രധാന തൊഴില് എന്ന് പറയണത് കൃഷിയാണ് ഇവിടെ എല്ലാവരും കൃഷിയാണ് കൂടുതലായിട്ടും ചെയ്യാറുള്ളത് കൃഷി തന്നെയാണ് അവരുടെ തൊഴില് എന്ന് പറയണത് അപ്പോൾ പലതരത്തിലുള്ള കൃഷികളുണ്ട് നെല്ല് ഇഞ്ചി വാഴ തെങ്ങ് ചേമ്പ് മരച്ചീനി അങ്ങനെ റബ്ബർ അങ്ങനെ ഒരുപാട് കൃഷികളുണ്ട് എല്ലാ തൊഴില്മേഖലകളും അതിന്റേതായ വെല്ലുവിളികള് നേരിടുന്നുണ്ട് കൃഷിയൊക്കെ പറയുമ്പോള് ഈ ഒരു കാലഘട്ടത്തില് കൂടുതലും കൃഷിയെ അനുഭവിക്കുന്ന ആള്ക്കാരുടെ ബുദ്ധിമുട്ട് കൂടുതലാണ് കര്ഷകര് ഒരുപാട് യാതനകള് അനുഭവിക്കുന്നുണ്ട് കാലാവസ്ഥ മാറ്റം മൂലം മതിയായ മഴ ലഭിക്കുന്നില്ല അതുപോലെ തന്നെ അതുകൊണ്ട് വിളവിനെ അത് തീര്ച്ചയായും ബാധിക്കുന്നുണ്ട് ഓരോ വര്ഷവും കൃഷിയില് നിന്നും ലാഭം കിട്ടുക എന്ന് പറയണത് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ കൃഷിയിലോട്ടു ഇറങ്ങുന്ന ആള്ക്കാരുടെ എണ്ണവും ഒരുപാട് കുറവ് സംഭവിച്ചിട്ടുണ്ട് പിന്നെ പറയുകയാണെങ്കില് കൃഷിയില് നിന്നു കിട്ടുന്ന പൈസ നമുക്ക് നെല്ല് വിലയായിട്ട് കിട്ടുന്ന പൈസ കിട്ടുന്ന ഒരുപാട് ഒരുപാട് സമയമെടുക്കുന്നു കാരണം എത്രയോ കാലം കഴിഞ്ഞതിനു ശേഷമാണ് പൈസ കിട്ടുക ചിലപ്പോൾ പൈസ കിട്ടുമോയെന്നു തന്നെ അറിയില്ല അങ്ങനെ എന്താ പറയുക ഒരു കര്ഷകനാണ് നാടിനെ അല്ലെങ്കില് ആ നാട്ടിലുള്ളവര്ക്ക് അന്നം കൊടുക്കുന്നത് പക്ഷെ ആ കര്ഷകന് അന്നം കിട്ടാത്ത ഒരു അവസ്ഥയാണ് ഇന്നിപ്പോൾ നമ്മുടെ സമൂഹം നേരിടുന്നത് പിന്നേ പിന്നെ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ മണ്ണിന്റെ വളക്കൂറില്ലാത്ത മണ്ണൊക്കെ ആണെങ്കില് അത് തീര്ച്ചയായും കൃഷിയെ തന്നെ ബാധിക്കും പിന്നെ ഒരുപാട് കുറച്ചു പേരൊക്കെ കീടനാശിനികളും മറ്റും ഉപയോഗിച്ചിട്ടൊക്കെ കൃഷി ചെയ്യുന്നവരുണ്ട് പിന്നെ മറ്റും കളശല്യം മറ്റും വന്നിട്ട് കൃഷി നശിച്ചു പോകുന്ന അവസ്ഥ കാലാവസ്ഥ മാറ്റത്തില് ഉണ്ടാകുന്ന അവസ്ഥ പിന്നെ ഇപ്പോൾ തൊഴിലാളികളെ തന്നെ കൃഷി ചെയ്യാന് കിട്ടുന്നില്ല കാരണം ആരും തന്നെ കൃഷിയിലോട്ട് ഇറങ്ങുന്നില്ല കൃഷിപ്പണി ഭയങ്കര മോശമാണെന്ന് പറഞ്ഞ് ആരും കൃഷിയിലോട്ടു തന്നെ വരുന്നില്ല അപ്പോൾ നമുക്ക് കൃഷി ചെയ്യാന് ആള്ക്കാരെ കിട്ടുക എന്ന് പറഞ്ഞാല് ബംഗാളിൽ നിന്ന് നമ്മൾക്ക് ആള്ക്കാരെ കൊണ്ടുവരണം അവര്ക്ക് അതിന്റേതായ അവര്ക്ക് കൂലിയും മറ്റു കാര്യങ്ങളും കൊടുക്കണം അങ്ങനെ കൃഷി എന്നത് നമ്മുടെ നമ്മുടെ കേരളത്തിലെ കേരളത്തില് ഇന്ന് ആള്ക്കാർ മറന്നു പോകുന്ന രീതിയാണ് കുറച്ചും കൂടി കാലങ്ങള് കൃഷി ചെയ്യുന്ന ആള്ക്കാരുടെ എണ്ണം തന്നെ കുറഞ്ഞു പോകും ഉല്പാദനം കൃഷിയുടെ ഉല്പാദനം എന്ന് പറയുമ്പോൾ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച ഓരോ മാറ്റത്തിനനുസരിച്ച് ഉല്പാദനം കൂടിയും കുറഞ്ഞും വരും എന്നാല് അവ എന്നാൽ കര്ഷകര്ക്ക് അതിന്റേതായ നെല്ലുവില ലഭിക്കാന് വൈകുന്നു അവര്ക്ക് ആ പൈസ കിട്ടിയിട്ട് വേണം മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യാന് പക്ഷേ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങള് വരുന്ന സമയത്ത് എല്ലാവരും കൃഷി ചെയ്യുന്നുണ്ട് എന്നാല് അതിന്റേതായ ഒരു ലാഭമൊന്നും കിട്ടുന്നില്ല എന്നാലും സ്വന്തം മണ്ണ് സ്വന്തമായി വിളയിക്കുന്ന ഭക്ഷണം കഴിച്ച് കഴിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു പ്രത്യേക കാര്യമാണ്